എനിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി തോന്നിയ ഒരു തുന്നലെന്ന് പറയുന്നത് സാരി ബ്ലൗസാണ് സാരി ബ്ലൗസിൻ്റെ തുന്നല് നമ്മൾ പഠിച്ചുവരണമെങ്കിൽ നല്ല രീതിയിലൊരു ബുദ്ധിമുട്ടുള്ളൊരു വസ്ത്രമാണ് കാരണം എന്നാല് അത് പഠിച്ചാൽ നല്ല കാര്യവുമാണ് അത് പഠിച്ചുവരുവാൻ ശകലം ബുദ്ധിമുട്ടേറിയ വസ്ത്രവുമായിരുന്നു അതിന് എത്രസമയം ചെലവഴിക്കേണ്ടി വന്നുവെന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ അളവുകൾ മനസ്സിൽ നല്ല ആഴമായി പതിഞ്ഞാൽ മാത്രമേ അത് പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അതാണ് എനിക്കേറ്റവും കൂടുതല് ബുദ്ധിമുട്ടായി തോന്നിയ വസ്ത്രം അത് പഠിച്ചുവന്നാൽ നല്ല കാര്യവുമായിരുന്നു കാരണം ഒരു ബ്ലൗസ് തുന്നിക്കൊടുത്താൽ ഇന്ന് ഞങ്ങളുടെ പ്രദേശത്ത് ഇരുന്നൂറ്റിയൻപത് രൂപ ഫീസാണ് ഒരു ബ്ലൗസ് തയ്ച്ചെടുക്കുന്നതിന് അതിന് ഒരു ലൈനിങ് വെച്ച് തയ്ച്ചെടുക്കുന്നതിന് നാനൂറ് രൂപ നാനൂറ്റിയമ്പത് രൂപ വെച്ചാണ് തയ്യലിന് അവർക്ക് കൊടുക്കേണ്ടത് അതുകൊണ്ട് സാരി ബ്ലൗസാണ് ഇന്നിപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതും അത് മനുഷ്യന് ശരീരത്തിനിണങ്ങുന്ന രീതിയില് അത് തുന്നിയെടുത്ത് കൊടുക്കുന്നതിന് ശകലം ബുദ്ധിമുട്ടുള്ളൊരു വസ്ത്രമാണ് എന്നാൽ സാമ്പത്തികം നല്ല രീതിയില് കൈവരിക്കാൻ പറ്റുന്നൊരു തുന്നലുമാണ് ഈ സാരി ബ്ലൗസ് പിന്നെ ബുദ്ധിമുട്ടേറിയതെന്ന് ചോദിച്ചാൽ മറ്റുപല വസ്ത്രങ്ങളൊക്കെയുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയ വസ്ത്രമെന്ന് പറയുന്നത് ഈ സാരി ബ്ലൗസായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് സാമ്പത്തികം നമുക്ക് കിട്ടുകയും ചെയ്യും ശകലം ബുദ്ധിമുട്ടാണ് അത് പഠിച്ചെടുക്കാനും ഒരു നാല് ബ്ലൗസൊക്കെ ഒരു ദിവസമിരുന്ന് നല്ലവണ്ണം തയ്ച്ചാല് എങ്ങനെപോയാലും ഒരു അതിൻ്റെ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയോളം നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രമാണ് സാരി ബ്ലൗസ് അതിപ്പം ചുരുക്കമാളുകള് ഇപ്പം സാരി ബ്ലൗസിൽ നിന്ന് മാറിയിരിക്കുകയാണ് കാരണം ഇതിൻ്റെ തുന്നലിൻ്റെ സാമ്പത്തികം ഓർക്കുമ്പോൾ ചുരിദാറുകളൊക്കെയാണ് എല്ലാവരുമിപ്പം തയ്ച്ച് പഠിച്ച് സ്വന്തമായിട്ട് തയ്ച്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം സാമ്പത്തികം വളരെ കുറവ് മതി അതിന് ഒരു സാധാരണ തുണിയെടുത്താലും ഒരു ടോപ്പ് തയ്ച്ച് ഉപയോഗിക്കാം അപ്പം അത് ഏറ്റവും കൂടുതല് ഇപ്പം തയ്യലില് പ്രയാസമുള്ളത് ബ്ലൗസ് തന്നെയാണ് അതാണെൻ്റെ അഭിപ്രായം